തീർച്ചയായും പഴയ തലമുറക്കാർ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ മതവിശ്വാസികളായിരുന്നു എന്നുതന്ന പറയാം അവരെല്ലാം മതവിശ്വാസികളേക്കാൾ കൂടുതലവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവർ ദൈവത്തെ ഭയന്ന് ദൈവ ആണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും സംഭവിച്ചാലതിൽ ദൈവ കോപമുണ്ടാകുമെന്നവർ വിശ്വസിച്ചിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നാലും അവരത് ദൈവകോപമാണോ എന്ന് നോക്കാൻ ഹിന്ദുമത പ്രകാരം ആചാരപ്രകാരം അവരതിനെ നോക്കാനും അതിന് പരിഹാരം ചെയ്യാനുമൊക്കെ പോകുമായിരുന്നു ഇന്നത്തെ കാലത്തെ ആൾ കുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ സയൻറ്റിഫിക്കായിട്ടവർ ചിന്തിക്കുവാൻ തുടങ്ങുന്നു അപ്പോളവർ ദൈവവിശ്വാസമുണ്ടെങ്കിലും അതിലേറെ ശാസ്ത്രത്തിന് വില കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചിന്തിക്കുമ്പോഴും അത് ശാസ്ത്രീയപരമായിട്ടേ അവരതിന് അവസാനം ഉത്തരം കണ്ടെത്താറുള്ളു അല്ലാതെ ദൈവികമായ ഒരതല്ല പദ്ധതിയല്ല നടന്നതെന്നായിരിക്കും അവർ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചിപ്പോൾ കൊറോണ കാലം വന്നുകഴിഞ്ഞതിനു ശേഷമായപ്പോഴത്തേക്കും വളരെ ഏറെ ചെറുപ്പക്കാർ വിശ്വാസത്തിൽ നിന്നകന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് പണ്ട് കാലത്ത് മതവിശ്വാസത്തെക്കാൾ കൂടുതലവർ ആചാരാനുഷ്ടാനങ്ങൾ വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ ആചാരാനുഷ്ടാനങ്ങൾ നടത്തിയിരുന്നു ഇന്ന് ആചാരാനുഷ്ടാനങ്ങൾ നടത്താൻ ചെറുപ്പക്കാർക്ക് താൽപ്പര്യമില്ല അവർ വിശ്വാസമുണ്ടെന്ന് പറയുകയും അവ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ പോയെങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് പ്രീതി കാണിക്കത്തൊളളൂ എന്നുള്ള ചോദ്യമുണ്ടാകും ദൈവം പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കാനാണ് അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകണമെന്നോ ബലിയർപ്പിക്കണമെന്നോ ഇല്ല അപ്പോളല്ലെങ്കിൽ തന്നെയും ദൈവം നമ്മളിൽ സംപ്രീതരാകും നമ്മളുടെ പ്രവർത്തികളും വാക്കുകളും ചെയ്തികളും എല്ലാം നല്ലതായാൽ മതിയെന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നു പക്ഷേ പണ്ടുകാലത്ത് മനുഷ്യർ ദൈവം നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മളോട് കോപിക്കും ദൈവകോപമൊണ്ടാകുമെന്നുള്ളത് ഒരു വിശ്വാസത്തിലായിരുന്നു പഴയ തലമുറക്കാർ ഇപ്പോഴത്തെ ജനറേഷനിൽ ദൈവകോപമല്ല ദൈവം ഒരിക്കലും നമ്മളെ ശപിക്കുകയില്ല അപ്പോൾ ദൈവത്തിന് താൽപ്പര്യം ബലിയല്ല കരുണയാണ് ദൈവത്തിനാവശ്യമെന്നുള്ള രീതിയിൽ അവർ പറയും നമ്മളുടെ പ്രവർത്തികളും വാക്കുകളുമൊക്കെയാണ് നമ്മൾ ദൈവത്തിന് സ്വീകാര്യമായിട്ട് ചെയ്യേണ്ടത് അല്ലാതെ അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം വിശ്വാസമാകണമെന്നില്ല ഇപ്പം പിന്നെ തന്നെയുമല്ല ഇപ്പോൾ കുട്ടികൾ പലരും ഇൻറ്റർകാസ്റ്റ് മാര്യേജാണ് കൂടുതലും നടക്കുന്നത് അവർ ഒരുമിച്ച് കണ്ടു വളർന്നു അല്ലെങ്കിലൊരുമിച്ച് പഠിക്കുമ്പോഴത്തേക്കും കണ്ട് വളർന്ന് പഠിച്ച് മനസ്സിലാക്കി അവർ തമ്മിൽ ജീവിക്കാനായിട്ടാഗ്രഹിക്കുന്നു അപ്പോളവർ മതവിശ്വാസത്തെ അവിടെ മതം മതം മാറ്റി നിർത്തി വിശ്വാസം കാണുമായിരിക്കും അവർ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം ഒരിക്കലും മതത്തെ സൃഷ്ടിച്ചിട്ടില്ല ദൈവം മനുഷ്യരെ മാത്രമേ സൃഷ്ടിച്ചിട്ടുളളൂ മതത്തെ സൃഷ്ടിച്ചിട്ടില്ല അപ്പോളത് കാരണം ഇന്നത്തെ ചെറുപ്പക്കാരുടെ ചിന്താഗതി അതാണ് അപ്പോളവർ മതത്തിൽ മതത്തിൻ്റെ ചട്ടക്കൂട് ലംഘിച്ച് ഒരുമിച്ച് ജീവിക്കുവാനും ഒരുമിച്ച് വിശ്വാസം പങ്കിടാനും

അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ പഴയ തലമുറക്കാരേക്കാൾ ചെറുപ്പക്കാർ കൂടുതലും മതവിശ്വാസികൾ അല്ല എന്ന് തന്നെ തീർത്തും പറയാം